ഈ കാലഘട്ടത്തിൽ ഓൺലൈൻ ആയിട്ടുള്ള മീറ്റിങ്ങൊക്കെ സജീവമാണ് അത് അതിന്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിട്യൂഷനിൽ ഞങ്ങൾക്കത് ഉപയോഗിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് എന്താണെന്ന് വച്ചു കഴിഞ്ഞാൽ കൊറോണയും വെള്ളപ്പൊക്കവും ഒക്കെ ആയി നമ്മൾ വീട്ടിൽ ഇരിക്കേണ്ട അവസ്ഥ വരുന്ന സമയത്ത് നമ്മളുടെ കാര്യങ്ങളപ്പോഴും മുന്നോട്ട് പോകണം അപ്പോൾ അതിനായിട്ട് നമ്മൾ മീറ്റിങ്ങൊക്കെ മീറ്റിങ്ങിൻ്റെയൊക്കെ എയ്ഡ് എടുക്കാറുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഞങ്ങളുടെ കൊളീഗ്സും സ്റ്റാഫും എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന മീറ്റിങ്ങിൽ ഓൺലൈനായിട്ട് നടത്തുകയാണെങ്കിൽ കൂടി വളരെ ഉപകാരപ്രദവും ആണ് എന്താണെന്ന് വച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് കാണാൻ കഴിയാത്ത ഒരു സന്ദർഭത്തിൽ നമ്മളുടെ കാര്യങ്ങളൊക്കെ അറിയിക്കാൻ പറ്റാത്ത ഒരു സന്ദർഭത്തിൽ അങ്ങനെ ഒരു ഉപകാരം ഉള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ് എന്നിരുന്നാൽക്കൂടി നേരിട്ട് കണ്ടു സംസാരിക്കുന്ന സമയത്തുള്ള ഇൻ്ററാക്ഷൻ പോലെ നമുക്ക് ഓൺലൈനിൽ കിട്ടാറില്ല കാരണം അവരുടെ എക്സാക്റ്റ് മെന്റൽ ആൻഡ് ഫിസിക്കൽ പ്രസൻസ് നമുക്ക് കിട്ടാറില്ല അപ്പോൾ അത് അതിൻ്റെ ഒരു ഡിസ്സഡ്വാന്റേജ് ആണ് പക്ഷെ ടെക്നോളജി ഒക്കെ ഒരുപാട് വളർന്ന സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലും എമർജൻസി ആയിട്ട് ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ മീറ്റിംഗ് നടത്തണമെങ്കിൽ അങ്ങനെ ഒരു കാര്യമുള്ളത് ഓൺലൈൻ ആയിട്ട് നടത്താൻ പറ്റുന്ന ഒരു എയ്ഡ് ഉള്ളത് വളരെ നല്ലതാണ് വളരെ ഉപകാരപ്രദവുമാണ്